ഇപ്പോൾ കേരളത്തില് വ്യവസായങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്നു വേണമെങ്കിൽ പറയാൻ പറ്റും കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമുക്ക് പല രീതിയിലുള്ള വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ തോട്ടത്തിലുള്ള റബ്ബറ് റബ്ബറെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ റബ്ബറ് വ്യവസായമൊക്കെ കൂടുതലായിട്ട് ഉള്ളതെന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഇടുക്കി ആ ജില്ലകളിലാണ് കൂടുതലായിട്ടും റബ്ബറ് വ്യവസായവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെനിന്നു പറഞ്ഞു കഴിഞ്ഞാല് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും തേയില കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് ഇപ്പോൾ തേയിലയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഡെയിലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മള് ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് നമുക്കെപ്പോഴും കിട്ടേണ്ടൊരു കാര്യം കൂടിയാണ് അപ്പോൾ അത് നമുക്കെപ്പോഴും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇതിനോടൊക്കെ നല്ല രീതിയില് പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകുന്നൊരു കാലത്താണ് നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും